വ്യത്യസ്ത നൃത്തം ശൈലി വ്യത്യസ്ത നൃത്തം ശൈലി എന്ന് പറയുമ്പം ഭരതനാട്യം കുച്ചിപ്പിടി മോഹിനിയാട്ടം അങ്ങനെ ഒരുപാട് നൃത്തം ശൈലികൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ആയിട്ടുണ്ട് നൃത്ത ശൈലിയിൽ സാംസ്കാരികപരമായിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള സംസ്കാരങ്ങളെ ഉൾക്കൊള്ളിച്ച് കൊണ്ടാണ് മോഹിനിയാട്ടം എന്ന് പറയുന്ന നൃത്തം നിലകൊള്ളുന്നത് അതുപോലെ തന്നെ കുച്ചിപ്പിടി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഭരതനാട്യം എന്ന് പറയുന്നതും തമിഴ്നാടിനെ ആസ്പദമാക്കിയിട്ട് തമിഴ്നാട്ടിലെ സംസ്കാരങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഈ മോ ഭരതനാട്യം അരങ്ങേറുന്നത് അപ്പോൾ ഓരോ ഇതുപോലെ തന്നെ ഓരോ ഗുജറാത്തി ഡാൻസ് അങ്ങനെ ഒരുപാട് നൃത്തങ്ങൾ ഈ ഇന്ത്യയിൽ തന്നെ ഒരുപാട് നൃത്തനൃത്യങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് അപ്പം അതൊക്കെ സാംസ്കാരികപാമായിട്ടുള്ള ഓരോ രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെയും സംസ്കാരങ്ങളെ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളിച്ച് കൊണ്ടാണ് ആ നൃത്തം രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ നൃത്തം എന്ന് പറയുന്നത് അവിടുത്തെ സംസ്കാരങ്ങളെ സ്വാധീനിച്ച് കൊണ്ടാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്